ആ പറയൂ ആരാണ് അതെ മേസ്രിയാണ് അപ്പോള് പിന്നെ കെട്ടിടത്തിൻ്റെ ബലമുള്ള ബിൽഡിംഗാണോ നിലവിലുള്ളത് ഫൗണ്ടേഷനൊക്കെ നല്ല ക്ലിയറണെങ്കില് മാത്രമേ നമുക്ക് മുകളിലോട്ടു ചെയ്യാൻ സാധിക്കൂ ആണല്ലേ ഓക്കെ ബെല്റ്റൊക്കെ ഉള്ളതാണല്ലോ അല്ലേ ബെല്റ്റൊക്കെ ഇട്ട് ചെയ്തതാണല്ലോ ആ അപ്പോള്പ്പിന്നെ കുഴപ്പമില്ല നമുക്കങ്ങനാണെങ്കില് അത് ഏകദേശം ഒരു വന്നൊരളവെടുക്കണം അളവെടുത്ത് എത്ര സ്ക്വയർ ഫീറ്റാവുമെന്നുള്ളൊരു കണക്കെടുത്താല്മാത്രം നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുള്ളൂ ഈ ചുടുകട്ടയാണോ ഹോളോ ബ്ലോക്കിട്ട് കെട്ടാനാണോ ഉദ്ദേശിക്കുന്നത് ഹോളോ ബ്ലോക്കാണ് മുകളില് ഷീറ്റാണോ വാര്പ്പാണോ ചെയ്യുന്നത് വാർക്ക് ഓ ഓ ഷീറ്റൊക്കെയാണെങ്കില് നമുക്ക് ചാർജ് കുറവായിരിക്കും വാർക്കുകയാണെങ്കിൽ അതു കുറച്ച് എമൗണ്ട് കൂടുതലായിരിക്കും കാരണം നമക്ക് കോസ്റ്റ് കൂടുതലായിരിക്കും വാർക്കുന്നതിൻ്റെ താല്പര്യമാവും സാധാരണ ഒന്നും നമുക്കിപ്പോള് ഷീറ്റൊക്കെ ഇട്ട് വരുകയാണെങ്കിൽ എമൗണ്ട് കുറവായിരിക്കും പക്ഷെ വാർക്കുമ്പോള് അത്രയും കമ്പി ഇപ്പോഴത്തെ സിമെന്റ് കോസ്റ്റ് കമ്പി കാര്യങ്ങള് വരുമ്പോള് വലിയൊരു ചാർജ്ജതിനകത്ത് വരും അപ്പോള് അങ്ങനെയാണെങ്കിൽ ഉദ്ദേശിച്ചതെന്നു പറയുമ്പോള് ഒരു ഒരു രണ്ട് റൂമാണ് രണ്ട് റൂമും ബാത്റൂമുമാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോള് ഏകദേശം ഒരു പതിനഞ്ചു ലക്ഷം രൂപ ഏകദേശം വരും അങ്ങനെ മൊത്തത്തിൽ ചെയ്യുമ്പോള് കാരണം പണിക്കൂലിയും മറ്റ് ഓ പണിക്കൂലിയും മറ്റു സാധങ്ങള് ഇപ്പോള് സിമെന്റ് വില കൂടുതലാണ് കമ്പി വില കൂടുതലാണ് പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോള് പിന്നെ താഴെ ടൈൽസ് ഗ്രാനൈറ്റ് മാർബിൾ അങ്ങനെ ചെയ്യണം പ്ലംമ്പിങ് വർക്ക് ചെയ്യണം പെയിന്റിങ് ചെയ്യണം ഇതെല്ലാം കൂടെ ചെയ്തുവരുമ്പോള് ഏകദേശം അത്ര ഏകദേശം ഇതിനകത്ത് നിങ്ങളുടെ സാമ്പത്തികസ്ഥിതി സാമ്പത്തികമായിട്ട് എത്ര വരെയും നിങ്ങള്ക്കു ചെയ്യാൻ പറ്റും പിന്നെ ഉദ്ദേശിക്കുന്ന എമൗണ്ടൊക്കെ ചെയ്യാൻ പറ്റും ഓ ശരി ശരി അങ്ങനെയാണെങ്കില്നമുക്ക് അതിനെക്കുറിച്ചൊരു പ്ലാനൊക്കെ വരച്ച് തയാറാക്കിട്ട് നമുക്കത് ഉടനെ തന്നെ പണി തുടങ്ങാമെന്നു തോന്നുന്നു അതിന്റെയൊരു ഒരു മോഡല് നമ്മളൊരു മോഡല് വരയ്ക്കണമല്ലോ അപ്പോള് ഫ്രണ്ടില്നിന്നു കാണാൻ വേണ്ടി ഒരു ഭംഗിയായിരിക്കണമല്ലോ ഓ ശരി ശരി അങ്ങനെയാണെങ്കില് ഞാനൊരു ആര്കിടെക്ചറിന്റെ കയ്യില് കൊടുത്തിട്ട് പ്ലാന് വരയ്ക്കാൻ വേണ്ടി കൊടുക്കാം കൊടുത്തിട്ട് അപ്പോള് അതുകൊണ്ടുക്കാണിച്ചിട്ട് നമുക്കെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കില് അതു മാറ്റം വരുത്തിക്കൊണ്ട് നമുക്കതു ചെയ്യൻ സാധിക്കും ആ ഉം ഉം ഉം ശരി ശരി ശരി അല്ല നമുക്കപ്പോള് എഗ്രിമെന്റ് വച്ചുകഴിഞ്ഞാല് എഗ്രിമന്റ് വച്ച് അഡ്വാൻസ് തരാന്നുണ്ടെങ്കില് നമുക്കതു പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി സാധിക്കും എത്രവരെ അഡ്വാൻസ് തരാൻ പറ്റും ആദ്യം പണിയുടെ അഞ്ചു ലക്ഷം അപ്പോള് അഞ്ചു ലക്ഷം കിട്ടുകയാണെങ്കില് നമുക്കടുത്ത ദിവസം തന്നെ വന്ന് പിന്നെ പ്ലാനും കാണിച്ചിട്ട് ഓക്കെയാക്കി നമുക്കെഗ്രിമെന്റ് വച്ചിട്ടുടനെത്തന്നെ പണി ആരംഭിക്കാം പിന്നെ അത്യാവശ്യം വരുന്നത് തടി വര്ക്കുകളതൊക്കെ റെഡിയാക്കണം അപ്പോള് ഏതു തടി വേണമെന്നുകൂടെ പറഞ്ഞാൽ ബെറ്ററായിരിക്കും തടികളേ തടി തടിയേതു വേണമെന്നുള്ളതേ നമുക്ക് ഈ പതിമൂന്ന് പതിമൂന്ന് ലക്ഷത്തിനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കില് ആഞ്ഞിലിയേ പറ്റുള്ളൂ തേക്കോ മറ്റൊന്നോ അതിനകത്തു ചെയ്യാൻ പറ്റുമെന്നു തോന്നുന്നില്ല അഞ്ഞിലിയൊക്കെയാണെങ്കില് ചെയ്യാന് സാധിക്കും അ ആ ഇല്ല അങ്ങനെയല്ല നമ്മളതു പിന്നെ തടികളൊക്കെ ചെയ്തുവച്ചിട്ടുണ്ട് അതുവച്ചു നമുക്കത് ഒരെണ്ണം തന്നെയെങ്കില് അതു പണി തുടങ്ങേണ്ട ഒരു ക്രമീകരണം നമുക്ക് ചെയ്യാം അപ്പോള് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ പ്ലാൻ വരച്ചിട്ട് ഞാനവിടെ കൊണ്ടുവരാം ഉം അതു മതിയല്ലോ ഓക്കെ ശെരി ഓക്കെ ശരി